നമുക്കിവിടെ പിന്നെ നമ്മുടെ അടുത്തുള്ളവർ എല്ലാവരും ഓരോ സ്ഥലത്താണ് സന്ദർശിക്കുന്നത് മതപരമായിട്ട് ഇപ്പം ക്രിസ്ത്യാനികൾ ആണെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിൽ പോവും മുസ്ലിംകൾ ആണെങ്കിൽ പിന്നെ മുസ്ലിംകൾ യുവ സ്ത്രീകൾ പോകില്ല പിന്നെ നിസ്കരിക്കാൻ ഒക്കെ പുരുഷന്മാർ പിന്നെ പള്ളിയിൽ പോവും മുസ്ലിം പള്ളികളിൽ പോവും അതേ പോലെ തന്നെ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോവും ഇവിടെ ഹിന്ദുക്കൾക്ക് പോവാൻ പറ്റിയ വളരെ വിശേഷമായ ഒരു ശിവക്ഷേത്രം ഉണ്ട് വളരെ പഴക്കം ചെന്നതും ആണ് പുരാതന കുറെ കാലഘട്ടങ്ങളായിട്ട് ഒരു മാ മഹാദേവ ക്ഷേത്രം ആണ് ഹിന്ദുക്കളൊക്കെ അവിടെ പോകും ഒരു തീർത്ഥാടന കേന്ദ്രം കൂടി ആണ് അവിടെ ഓരോ സ്ഥലത്ത് പോവുമ്പോൾ അവർക്ക് അതിന് ചരിത്രം ഉണ്ട് പ്രാധാന്യം ഉണ്ട് മനസ്സിനൊരു സന്തോഷവും ലഭിക്കും ആ പോവുന്നതിലൂടെ